യോഗ എന്ന് പറയുന്നത് ഒരു വ്യായാമം മാത്രമല്ല യോഗ എന്ന് പറയുന്നത് ഇപ്പം അത് നമ്മുടെ മനസ്സിനാണെങ്കിലും ബ്രെയിനിനാണെങ്കിലും ഭയങ്കര സ്ട്രെസ്സ് കൂട്ടുന്നതിനൊക്കെ യോഗ ഭയങ്കര ഉപകാരമുള്ളതാണ് യോഗ ചെയ്താൽ ഞങ്ങൾക്ക് ഈവൻ എല്ലാം ഇപ്പം യോഗയിലൂടെ ചിലപ്പം ബോഡി പെയിൻ ആണെങ്കിലും മനസ്സിലുള്ള സ്ട്രെസ്സ് ആണെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് യോഗയിലൂടെ എല്ലാം ഞങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്